എനിക്കങ്ങനെ പ്രിയപ്പെട്ടതാന്ന് പറഞ്ഞിട്ടൊരു കായിക വിനോദം ഒന്നുമില്ല ഞാൻ നോർമൽ ടി വിയിലൊക്കെ വരുന്ന കായികം കാണാറുണ്ട് തന്നെയല്ല പത്രത്തിലൊക്കെ കാണുന്ന ഇതിൻ്റെ വാർത്തകളൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട് ഞാൻ ഈ ഇടയ്ക്ക് കാണാൻ തുടങ്ങിയതാണ് കബഡി അറ്റ് ടി വിയിൽ കബഡീടൊരു പ്രോ കബഡി ലീഗ് എന്നും പറഞ്ഞിട്ടൊരു ലീഗൊണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ ഒന്ന് രണ്ട് സീസൺ അതിൻ്റെ കണ്ടിട്ടുണ്ട് അപ്പം അതിന്റകത്ത് പന്ത് പന്ത്രണ്ട് ടീംസെങ്ങാണ്ട് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കളിയാണത് അവിടെ ഓരോ ടീമിലും ആറു പേ പേർ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടു പേർ പന്ദ്രണ്ട് പേരാണ് ഒരു കളിയിലുണ്ടാവുന്നത് അത് എനിക്ക് അതിൽ ഏറ്റവും കൂടുതലിഷ്ടപ്പെട്ട ഒരു ടീം എന്ന് പറയുന്നത് ജയ്പൂരിൻറ്റൊരു ടീമായിരുന്നു അത് പിങ്ക് പാന്തേഴ്സ് എന്നായിരുന്നു ആ ടീമിൻറ്റെ പേര് ആ അവരുടെ കബളി കബഡി കളി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ആ ലീഗിലെനിക്ക് തോന്നുന്നത് അവരാണെന്ന് തോന്നുന്നു അന്ന് വിജയിച്ചത് അതുകൊണ്ടെനിക്ക് കബഡി കളി കുറച്ചൊക്കെ ഇഷ്ടമാണ് അതല്ലാതെ വേറെ കായിക ഇനത്തെ കുറിച്ചൊന്നും എനിക്ക് കൂടുതലായിട്ടുള്ള അറിവുകളൊന്നുമില്ല